എന്നെ സംബന്ധിച്ചോളം സന്തോഷിപ്പിക്കാൻ എന്നുപറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷം തോന്നാറുണ്ടല്ലോ ഇപ്പം കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ചിരിയും കളിയൊക്കെ കാണുമ്പോൾ സന്തോഷം അതുപോലെ നമ്മൾ ഇഷ്ടംപോലെ ട്രിപ്പ് പോകുമ്പോൾ അത് നമുക്ക് സന്തോഷമാണ് വീട്ടുകാർ വഴക്കൊന്നും പറയാതെ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മളെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തരുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് ഇനി ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി തരുമ്പോഴും നമ്മളാൽ കുക്കിംഗ് ചെയ്യുമ്പോഴും അതൊക്കെ കഴിക്കാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ് സന്തോഷിപ്പിക്കുന്നത് എന്നുപറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷം തോന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ട്രിപ്പ് പോകുന്നത് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ച ഒരാളാണ് അപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കുഞ്ഞുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും ട്രിപ്പ് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് എനിക്ക് മെയിനായിട്ട് ഫുഡാണ് ഇച്ചിരികൂടി ഇത് ട്രാവൽ ചെയ്യുമ്പോഴേ നമ്മൾ കഴിച്ചിട്ടില്ലാത്ത ആഹാരമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ അടിച്ചു പൊളിച്ച് ട്രിപ്പൊക്കെ പോയി കാണാൻ ഒരുപാട് കാഴ്ചകൾ ട്രിപ്പ് പോകുമ്പോൾ കാണാമല്ലോ നമ്മൾ ഇതുവരെ പോകാത്ത സ്ഥലത്തൊക്കെ പോയി കാണുമ്പോൾ ആ കാഴ്ച്ചകളൊക്കെ നമുക്ക് ഭയങ്കര അത്ഭുതമല്ലേ അങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വീട്ടുകാരുമായിട്ട് അവരുമായിട്ട് വഴക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല ചിരിച്ച് കളിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നടക്കുന്നത് ഭയങ്കര സന്തോഷമാണ് പിന്നെ എന്താ എല്ലാകാര്യങ്ങളും സന്തോഷമാണ് സങ്കടപ്പെടാൻ ആരും ആഗ്രഹിക്കത്തിലല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല സന്തോഷിക്കുന്ന കാര്യങ്ങളല്ലേ എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം ട്രിപ്പ് പോകുന്നതു തന്നാണ് നമുക്ക് ഓരോ സ്ഥലത്തെ കാഴ്ച്ചകളൊക്കെ കാണാൻ പറ്റുന്നതു തന്നെ വലിയ ഭാഗ്യല്ലേ ഇപ്പോൾ വലിയ വ ഓരോരോ രാജ്യങ്ങളിൽ പോകാൻ പറ്റുകയും അവിടുത്തെ ഓരോ കാര്യങ്ങൾ അവിടുത്തെ ജീവിത ശൈലികളോടും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നതൊക്കെ വലിയ കാര്യമാണ് അപ്പം അ അതൊക്കെ തന്നെയാണ് നമുക്ക് ഓർത്തിരിക്കാൻ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയകാര്യമെന്നു പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് പോകുന്നത് തന്നാ അതാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ രീതിയാണേ എൻ്റെ രീതിയിൽ എനിക്ക് ട്രിപ്പ് പോകുന്നതിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് അതിപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻറ്റും കുട്ടിയുമായിട്ട് അങ്ങനെയൊക്കെ എല്ലാകാര്യങ്ങളും സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം സങ്കടപ്പെടാനാരും ആഗ്രഹിക്കാറില്ലല്ലോ